ഇപ്പം ഇൻ്റർനെറ്റിനെ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് എങ്ങനെ എങ്ങനെ ബാക്കിയുള്ളവർക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും സഹായകമാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നമുക്ക് ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നു ഒരു കാര്യം സർച്ച് ചെയ്യണം എങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റിൽ കയറിയിട്ട് സെർച്ചു ചെയ്തു കഴിയുമ്പോഴത്തേക്കും ഇന്നത് ആ ഇന്നത് പോലെ ഇന്ന കാര്യങ്ങൾ സെർച്ച് ചെയ്തു കഴിയുമ്പോഴത്തേക്കും അത് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും അപ്പം

ഇമെയില് പോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അയക്കാനും പെട്ടെന്ന് അയക്കാനും തുറക്കാനൊക്കെ പറ്റും അപ്പം പണ്ടൊക്കെ എന്നു പറയുമ്പോൾ കത്ത് എഴുതി അയക്കുക ഒക്കെ ആയിരുന്നു അപ്പം ഇൻ്റർനെറ്റ് കൊണ്ട് ഇപ്പം വളരെയധികം പുരോഗതി ഉണ്ടായിരിന്നു ഇൻ്റർനെറ്റുള്ളത് കാരണം നമുക്ക് ഇമെയിൽ ആയിട്ട് നമുക്ക് ഇമെയിൽ ആയിട്ട് നമുക്ക് സന്ദേശങ്ങൾ അയക്കാം അല്ലെങ്കിൽ ഒരു ഒരു ഒരു സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഇമെയിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഓൺലൈനിലൂടെ ഓരോ ആപ്പുകളിലൂടെ നമുക്ക് നമ്മടെ സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് ഇൻ്റർനെറ്റ് പിന്നെ സന്ദേശങ്ങളെല്ലാം അയക്കുന്നത് ഏറ്റവും കൂടുതൽ എളുപ്പം ആക്കുന്നുണ്ട് ഇൻ്റർനെറ്റ് വഴി ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിൽ ചെയ്യാനായിട്ട് എന്നു പറയുമ്പോൾ നമുക്ക് ഒരു നമുക്ക് ഒരു കാര്യം ആവശ്യമുണ്ടെന്നു വച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിള് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമ് തുടങ്ങിയ അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ നമുക്ക് നമുക്ക് ഇൻ്റർനെറ്റ് വഴി ഉപയോഗിച്ചു സെർച്ച് ചെയ്തു അത് സബ്മിറ്റ് ചെയ്യാനായിട്ടും ആ സെർച്ച് ചെയ്തു നമുക്ക് അതിൻ്റെ വിവരങ്ങൾ എടുക്കാനും ഒക്കെ പറ്റിയ ഒരു അസൈൻമെൻ്റ് എഴുതാനാണെങ്കിൽ പോലും അത് നമുക്ക് അസൈൻമെൻ്റ് ഒരു അസൈൻമെൻ്റ് എഴുതാനാണെങ്കിൽ പോലും നമുക്ക് ഇൻ്റർനെറ്റ് വഴി പറ്റും നമുക്ക് അതിനുള്ള ആവശ്യമുള്ള വിവരങ്ങളെല്ലാം നമുക്ക് ലഭിക്കും ഇൻ്റർനെറ്റിലൂടെ നമുക്ക് ലഭിക്കും അപ്പോൾ അങ്ങനെ ഇൻ്റെർനെറ്റ് വളരെയധികം സഹായകമാണ് ഇൻ്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുക എന്നു പറഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ഗൂഗിള് യൂട്യൂബ് വിക്കിപ്പീഡിയ തുടങ്ങിയ അങ്ങനെ ഗൂഗിളിലൊക്കെ വേണമെങ്കിൽ വിക്കിപീഡിയ പോലെയുള്ള സൈറ്റുകളിലൊക്കെ കയറി നമ്മൾ സെർച്ച് ചെയ്യണം ഇന്ന പോലെ കാര്യങ്ങൾ അത് സെർച്ചു ചെയ്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത് ഫുൾ ആയിട്ട് നമുക്ക് അതിൻ്റെ വിവരങ്ങളെല്ലാം കിട്ടും അപ്പങ്ങനെയാണ് ഇൻ്റർനെറ്റ് വളരെ അധികം നമുക്ക് ഉപകാരപ്രദമാകുന്നതും അതിൽ നിന്ന് നമുക്ക് വിവരങ്ങളൊക്കെ കിട്ടുന്നതും